പണ്ടത്തെ കളികളെക്കാളും ഇന്നത്തെ കുട്ടികള് കളിക്കുന്നത് പുതിയ പുതിയ കളികളാണ് അവര്ക്കിഷ്ടമുള്ള തരത്തിലുള്ള സ്പോര്ട്സ് ആണ് അവര് ചൂസ് ചെയ്യുന്നത് അതായത് പണ്ടത്തെ കളികളായ കബഡി കൊക്കൊ ഒന്നും ഇന്ന് കാണാന് തന്നെ ഇല്ല അതും നമ്മുടെ ഇന്ത്യയിലിന്നത് വളരെ കുറവാണ് അതിനുപകരമായി ഇന്നത്തെ കുട്ടികള് കളിക്കുന്നത് ചെസ്സ് ഫുട്ബോള് ക്രിക്കറ്റ് അതുപോലെ തന്നെ വാട്ടര് സ്പോര്ട്സായ സര്ഫിങ്ങ് സ്കൂബാ ഡൈവിംഗ് എന്നിവയൊക്കെയാണ് ഇതൊക്കെ കുട്ടികളെ നല്ല രീതിയില് തന്നെ ഹെല്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നാടന് രീതികളിലുള്ള കളികള് അവര് മറന്നിരിക്കുന്നു പിന്നോ ട്ടു പോയാല് മാത്രം ജയിക്കുന്ന ഒരു കളിയായിരുന്നു വടംവലി എന്നാൽ നമ്മുടെ നാട്ടിലിന്നു വടംവലി ഒരു സ്പോര്ട്സായിട്ട് പോലും ആരും കാണുന്നില്ല വളരെ ചുരുക്കം ആള്ക്കാരാണ് വടംവലി കളിക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ തനിമയെ എല്ലാവരും കാണിക്കുന്ന ഒരു കളിയായിരുന്നു വള്ളംകളി വള്ളംകളിയൊക്കെ ഇപ്പോള് വളരെ ചുരുക്കം സ്പോര്ട്സായിട്ടാണ് കാണുന്നത് അതിനുപകരം കുട്ടികളിന്നു ചൂസ് ചെയ്യുന്നത് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെയാണ് അവര്ക്കിന്ന് ആ കളികളൊക്കെ മതി ഹോക്കിയൊന്നും നമ്മുടെ നാട്ടിലിന്ന് കുട്ടികള്ക്ക് വളരെയധികം മറന്നു പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്ന് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോള് ഏറ്റവും കുടുതൽ ആള്ക്കാര് കളിക്കുന്നത് ഒന്നല്ലെങ്കില് റിലെ അല്ലെങ്കില് ഷോര്ട്ട് പുട്ട് ജാവെല്ലിംഗ് അതൊക്കെയായിരുന്നു അതിനൊക്കെ വളരെ നല്ല ഹെല്ത്ത് വേണ്ടിയിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികളെല്ലാം പുതിയ പുതിയ നമ്മുടെ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ ഫുട്ബോള് പ്ലെയറും പ്ലെയേസും കളിക്കുന്നത് കണ്ട് അവരെ സപ്പോര്ട്ട് ചെയ്യുന്ന ഫുട്ബോള് ക്രിക്കറ്റിലേക്കാണ് ഏറ്റവും കൂടുതല് ആള്ക്കാര് പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികള് കളിക്കുന്ന പുതിയ പുതിയ കളികള്